ഹലോ എയർ ഇന്ത്യയല്ലേ ആ ഞാന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തപ്പോള് എക്സ്ട്രാ ലെഗ് റൂമിനുവേണ്ടി അപേക്ഷിച്ചിരുന്നു

അപ്പോള് എനിക്ക് ഞാനിപ്പോള് വിളിച്ചത് എനിക്ക് എമർജൻസി എക്സിറ്റ് റോയില് സീറ്റ് കിട്ടാൻ പറ്റുമോ എന്ന് ഈ എക്സ്ട്രാ ലെഗ് റൂം കൂടെത്തന്നെ അധിക ലെഗ് റൂമില്ക്കൂടെത്തന്നെ എമർജൻസി എക്സിറ്റ് റോയില് എനിക്ക് സീറ്റ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു

എന്റെ ഫ്ലൈറ്റ് നമ്പർ ജെ കെ എൽ ഫോർ ഫോർ ഫൈവ് അതെ ആ കാലിക്കറ്റില്നിന്ന് എടുക്കുന്നത് അതെ അതെ

എന്റെ മൊബൈൽ നമ്പറോ ഓഹ് ഒമ്പത് ഒമ്പത് ഒമ്പത് അഞ്ച് അഞ്ച് അഞ്ച് ആറ് നാല് എട്ട് നാല് അപ്പോള് എനിക്കു കിട്ടുകയാണെങ്കില് എങ്ങനെയാണു ഞാൻ അറിയുക ആ അതെ ആ ഓക്കെ ഈ നമ്പറില് വാട്സാപ്പ് ചെയ്താല് മതി ആ അതെ ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്ത് ടിക്കറ്റ് ഈ നമ്പറില് വാട്സാപ്പ് ചെയ്താല് മതി എന്നാല് ശരി ഓക്കെ താങ്ക്സ്